വാര്ധക്യ സഹജമായ ഒരുപ്രായം കഴിഞ്ഞുകഴിഞ്ഞാല് മനുഷ്യനു വളരെയേറെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടു വരുന്നുണ്ട് മക്കളൊന്നും നോക്കാൻ തയാറാകാത്തൊരവസ്ഥ പലരെയും മക്കള് കാർന്നോന്മാരെ മാറ്റിവിടും കാർന്നോന്മാരെ മാറ്റി അവരെ അവരിൽ നിന്നുള്ള സംരക്ഷണത്തിന്നു മാറ്റിനിർത്തി കാർന്നോന്മാര് സ്വതന്ത്രരായിട്ടു പോകട്ടെ എന്നൊള്ളൊരു പ്ലാനില്ക്കൂടെയാണ് ഇപ്പോഴത്തെ മക്കളുടെയൊക്കെ കൂടുതലും ഇത് അവരുടെ ആരോഗ്യപരമായിട്ട് നമ്മൾ ആദ്യമൊക്കെ പോകുന്ന ആ കാലഘട്ടത്തില്നിന്ന് ഈ വാർധക്യത്തിലേക്കു വരുമ്പോഴേക്കും പറ്റില്ലാണ്ടാകുന്നു മറ്റുള്ളവരുടെ സഹായം വേണ്ടിവരുന്നു ഈ സഹായത്തിനൊക്കെ ആരെ തേടണമെന്നു നോക്കിക്കഴിയുമ്പോൾ അതിനു സഹായം കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന മാനസികമായ വെല്ലുവിളികളൊക്കെ ഒത്തിരി ഈ പ്രായമായ ആൾക്കാരിൽ ഉണ്ടാകാറുണ്ട് എന്താണു ചെയ്യേണ്ടതെന്ന് അവർക്കു തന്നെ അറിയാൻ പാടില്ലാത്ത പോലെയുള്ള വിഷമങ്ങള് ഉണ്ടാകുയൊക്കെ ചെയ്യും അപ്പോഴവരെ സഹായിക്കാൻ

സർക്കാർ ലെവലില്ത്തന്നെ അവർക്കു വേണ്ടതായ വസ്ത്രങ്ങള് മരുന്നുകള് ബ്ലഡ് നോക്കുന്നതിനുള്ള ഉപകരണങ്ങള് പ്രഷർ നോക്കുന്നതിനുള്ള ഉപകരണങ്ങള് മറ്റു രോഗങ്ങൾക്കു വേണ്ടിവരുന്ന ഉപരണങ്ങളൊക്കെ സർക്കാർ കൊടുക്കാറുണ്ട് പക്ഷേ എങ്കില്പ്പോലും അതൊന്നും നമ്മളിലേക്ക് എത്താറില്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുകൊണ്ട് കാരണം പഞ്ചായത്ത് ലെവലിലും ബ്ലോക്ക് ലെവലിലും ജില്ലാ ലെവലിലും വയോജനങ്ങൾക്കുവേണ്ടി അഞ്ചു ശതമാനം പൈസ മാറ്റിവയ്ക്കുന്നുണ്ട് നമ്മുടെ നികുതിയില്നിന്ന് അഞ്ചു ശതമാനം വയോജനങ്ങൾക്കു വേണ്ടി മാത്രം മാറ്റിവച്ചേക്കുന്നതാണ് പക്ഷേ ഇന്നു കേരളത്തിലെ പല പഞ്ചായത്തുകളിലും ഇതിനു വേണ്ടതായ സഹായങ്ങൾ കിട്ടാറില്ല വളരെ ചുരുക്കം ചില പഞ്ചായത്തകളിലാണ് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണങ്ങളും നമുക്കു കിട്ടുന്നത് വാർധക്യത്തിലേക്കെത്തുന്ന അവരുടെ അനുഭവങ്ങളെ ശരിക്കും ഉപയോഗപ്പെടുത്താനും ഇന്നുള്ള ആൾക്കാർ ശ്രമിക്കുന്നില്ല അവരെ മാറ്റി നിർത്തുന്നതായിട്ടാണ് നമ്മള് കാണുന്നത് അപ്പോഴവർക്കു വേണ്ടതായ എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ വേണ്ടി അതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് കിട്ടാവുന്നത് അതു പരമാവധി കിട്ടുക ഈ കാർന്നോന്മാരെയൊക്കെ പകൽ വീടുകളിലേക്കു മാറ്റി പകല് അവർക്കു സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ളൊരു അവസരമുണ്ടാക്കുക ഹോസ്പിറ്റലുകളിൽ അവർക്കു പ്രത്യേക വിങ്ങ് കൊടുക്കുക മരുന്നുകള് സൗജന്യമായിട്ടു കിട്ടാനുള്ള മാർഗങ്ങൾ ചെയ്യുക മക്കൾ നോക്കാൻ തയ്യാറാകുന്നില്ലെങ്കില് അവരെ നോക്കുന്നതിനുവേണ്ടി സർക്കാരിന്റെ ഭാഗത്തുനിന്നു ചെയ്യാവുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്യിക്കാനുള്ള കടമയുണ്ടാക്കുക ഇല്ലെങ്കിൽ സർക്കാര് തന്നെ അതുനു വേണ്ടതായ മാർഗ്ഗങ്ങൾ ചെയ്തുകൊടുക്കണം ഇന്ന് വാർധക്യ ത്തില് വന്നുകഴിയുമ്പോഴേക്കും കിടന്ന കിടപ്പിലൊക്കെയായിപ്പോകുന്ന ആൾക്കാർക്ക് ഒരാളുടെ സഹായം വേണ്ടി വരും അതിനു വേണ്ടിയൊരാളെ നിർത്താനുള്ള സജ്ജീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നു വേണം മക്കളൊക്കെ ജോലിക്കൊക്കെ പോയിക്കഴിയുമ്പോള് ഇവരെ നോക്കാൻ ആരും ഉണ്ടാവില്ല അങ്ങനെ വരുന്നതുകൊണ്ട് അതിനുവേണ്ടിയുള്ള സഹായങ്ങളുംകൂടെ കൂടി കിട്ടാനുള്ള മാർഗ്ഗങ്ങള് നോക്കണം ഇവർക്കടെ ഭക്ഷണം അത് ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ വാർധക്യസഹജമായിട്ട് ഇ ഇവര് കിടപ്പിലാണ് മക്കളൊക്കെ ജോലിക്കു പോയിക്കഴിഞ്ഞാൽ സ്കൂളില് കൊച്ചു പിള്ളേരുള്ളത് സ്കൂളിലും പോവും അങ്ങനെ പോയിക്കഴിയുമ്പോള് അങ്ങനെയുള്ളവർക്കുപോലും ഭക്ഷണം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കിട്ടുന്നതിനും അതിനു വേണ്ടി സർക്കാർ ലെവലില് അംഗനവാടികളിലോ അങ്ങനെ എന്തേലും സ്ഥാപനത്തില്ക്കൂടി ഇതു കിട്ടാന് വേണ്ടിയുള്ള എല്ലാ ഇടപാടുകളും ചെയ്യണം എന്നതാണ് ഈ വാർധക്യ സഹജമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എനിക്കു പറയാനുള്ളത് പ്രത്യേക ചികിത്സാസൗകര്യങ്ങള് അവർക്കു വിനോദങ്ങള് വേണം വിനോദത്തിനു വേണ്ടിയിട്ടുള്ള ആ ല്നമ്മളീ പകൽ വീടൊക്കെ ഉണ്ടെങ്കില് അവിടെ എല്ലാവരും കൂടിയിരുന്നു തമാശ പറയുകയും കളിക്കുകയും കാരംസ് കളിക്കുകയോ അങ്ങനെ പറ്റുന്നവർക്ക് അവിടെ പോയിരുന്നു കളിക്കാനും അങ്ങനെ എല്ലാ സ്ഥലത്തും ഒരു നമ്മുടെ പ്രദേശങ്ങളില് പകൽവീടുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ് അതിനു വേണ്ടതായ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണം ഇതൊക്കെയാണു വാര്ധക് സഹജമായിട്ടുണ്ടാകാവുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ചെയ്യേണ്ടത് അതിനുവേണ്ടി എന്തൊക്കെ മാർഗ്ഗങ്ങളില്ക്കൂടിയാണെങ്കിലും നമ്മൾക്കു തന്നെ കിട്ടാന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതുണ്ടാവുന്നുണ്ട് ആ ഇതൊക്കെയാണ് ഇപ്പോള് എനിക്കു കൂടുതലായിട്ടു പറയാനുള്ളത് ഇനി വേണ്ട ഒത്തിരി കാര്യങ്ങള് പറയാനുണ്ട് എങ്കിലും ഞാന് ഇത്രയും കാര്യങ്ങള് പറഞ്ഞുകൊണ്ടു നിർത്തുകയാണ് നന്ദി നമസ്കാരം